പിന്നേ പടം വരപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ പാഷൻ അതാണ് നല്ലപോലെ വരച്ചിട്ടുണ്ട് വരയ്ക്കാനും അറിയാം പിന്നെ കുഞ്ഞിലെ തൊട്ട് ഞാൻ പടം വരയ്ക്കും കുഞ്ഞിലെ അംഗനവാടി തൊട്ടേ ഞാൻ പടമൊക്കെ വരയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്കതിൽ താൽപ്പര്യം കൂടുതലാണ് പിന്നേ കുഞ്ഞ് ക്ലാസിലിപ്പം പിന്നെ വല്ല മത്സരമോ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ പങ്കെടുക്കാറൊക്കെയുണ്ട് ഫസ്റ്റ് കിട്ടാറൊക്കെ ഉണ്ട് സെക്കൻഡ് കിട്ടാറുണ്ട് തേഡ് പിന്നെ ചിലപ്പോൾ ഒന്നും കിട്ടാറുമില്ല എന്നാലും എൻ്റെ പാഷൻ അതാണ് ഞാൻ താൽപ്പര്യം കാണിക്കും എപ്പോഴും ഒരു മത്സരം ഒക്കെ വരുമ്പോൾ ചെന്ന് പങ്കെടുക്കാറൊക്കെ ഉണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് അഭിമാനം തോന്നിയ കാര്യമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിലെ ഞാൻ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിച്ച സമയത്ത് ഒരു കുഞ്ഞ് കിളീടെ ഫോട്ടോ പടം ഞാൻ വരച്ചായിരുന്നു ചിത്ര മത്സരത്തിൽ പങ്കെടുത്തിട്ട് വരച്ചിട്ടെനിക്ക് ഫസ്റ്റ് കിട്ടി ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടിയത് അതിനാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് ഞാൻ വീട്ടിലെല്ലാവരേയും കൊണ്ടു കാണിച്ച് എല്ലാവരും പറഞ്ഞു ആ കൊള്ളാം പടം വരപ്പ് നിർത്തണ്ട പിന്നെ മുന്നോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് വേണ്ടായെന്നാരും എതിർത്തൊന്നുമില്ല വേണ്ടാന്നൊന്നും ആരും പറഞ്ഞൊന്നുമില്ല എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചില്ല വീട്ടുകാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും കൂടെ തന്നെ ഉണ്ട് പിന്നെ ആ ഫോട്ടോ തന്നെ ആ പടം തന്നെ പിന്നെ ഫസ്റ്റ് കിട്ടിയ ഉടനെ എല്ലാവരേയും കൊണ്ട് കാണിച്ച് അന്നത്തെ ദിവസം ആഘോഷമായിരുന്നു വീട്ടിൽ പിന്നെ അത് പകുതി ഒരു കുറേ നാൾ വരെ നമ്മളെ വീട്ടിൽ ഒരു ഇത് ചില്ലൊക്കെ ഇട്ടു വെച്ച് ഫ്രെയിം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴയ വീടൊക്കെ പൊളിച്ചപ്പം അതൊക്കെ എടുത്ത് മാറ്റി ചെറിയൊരു ഓർമ്മ തന്നെ ആയിരുന്നു നല്ല അഭിപ്രായം ആയിരുന്നു എല്ലാവർക്കും നല്ലപോലെ വരച്ചുവെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പോഴും ഞാൻ കയറും പിന്നെ തോറ്റാലും ജയിച്ചാലൊന്നും എനിക്കതൊരു പ്രെശ്നമൊന്നുമല്ല കാരണം നമ്മൾ പങ്കെടുക്കുന്നതുതന്നെ വല്ല്യൊരു കാര്യമല്ലെ പങ്കെടുത്തുവെന്ന് പറയുന്ന തന്നെ വല്ല്യൊരു കാര്യമാണ് അപ്പം അത് ഇപ്പം എല്ലാവർക്കും ജയിക്കാൻ പറ്റൂല്ലല്ലൊ അതുകൊണ്ടുതന്നെ എനിക്ക് വിഷമമൊന്നും തോന്നീട്ടില്ല എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലേ ഉള്ളു വിഷമം അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ചാടി കേറി പങ്കെടുക്കും പ്രത്യേകിച്ച് പടം വരപ്പില് തന്നെ പാടാൻ അറിഞ്ഞുകൂടെങ്കിലും ഞാൻ പാടാൻ ചെന്ന് കേറും ഡാൻസ് കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലും ഡാൻസ് കളിക്കും എനിക്ക് അങ്ങനെയൊരു ക്യാരക്റ്ററായതു കൊണ്ട് എനിക്ക് എല്ലാത്തിനും പങ്കെടുക്കാൻ ഭയങ്കര താൽപ്പര്യമാ ഫസ്റ്റ് കിട്ടുമോ ഇല്ലയോന്ന് ഞാൻ നോക്കത്തില്ല പങ്കെടുക്കാൻ ഉള്ളത് ഞാൻ കയറി പങ്കെടുക്കും അത്കൊണ്ട് പടം വരപ്പിനൊക്കെ എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല തോറ്റാലും ജയിച്ചാലും വിഷമമൊന്നുമില്ല ജയിച്ചാൽ സന്തോഷേമേ ഉളളൂ തോറ്റാൽ വിഷമമൊന്നുമില്ല കാരണം ഞാൻ എന്താ എന്തോ എനിക്ക് പടം വരക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ട് ഞാൻ പങ്കെടുക്കും ജയവും തോൽവി ഒന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പിന്നെ എൻ്റെ റൂമിലൊക്കെ ഫുള്ള് പടം വരച്ചിട്ടുണ്ട് എൻ്റെ ഞാനും അനിയത്തിയും ചെറുതായിട്ടൊക്കെ വരയ്ക്കും അപ്പം നമ്മൾ വരച്ച പടങ്ങളാണ് ഫുള്ള് റൂമ് നമ്മൾ വൈറ്റ് കളർ പേപ്പറിലൊക്കെ പടം വരച്ച് റൂമിലൊട്ടിച്ച് വെക്കുന്ന സ്വഭാവം ഒക്ക ഉണ്ട് പിന്നെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്റെയൊരു പടം കാണും ഓട്ടോഗ്രാഫിൽ ഞാൻ പടം വരച്ചു കൊടുക്കും അങ്ങനെ പിന്നെ ബിർത്ത് വരുമ്പോഴൊക്കെ ഒരു ചോക്ലേറ്റോ ഗിഫ്റ്റോ എന്തേലും കൊടുത്താലും കൂടെ എൻ്റെ പടവും കാണും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് ഓർക്കുകയും ചെയ്യും പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇത് എന്നെ കൂട്ടുകാരായാലും വീട്ടുകാരായാലും വീട്ടുകാരായാലൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് സപ്പോർട്ടും നല്ല കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരിക്കലും പിറകോട്ട് വലിക്കത്തില്ല കാരണം ചെയ്യണ്ടാന്നൊന്നും പറയില്ല പിന്നെ ഇപ്പം പിന്നെ നമ്മൾ കുഞ്ഞ് ക്ലാസ്സാണ് പഠിയ്ക്കണ്ട സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് പടം വരപ്പ് മാറ്റി വെച്ചു കാരണം നമ്മുടെ കോൺസൻട്രേഷൻ പോവുമല്ലോ